ഈ അടുത്ത വർഷങ്ങളിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളരെയധികം ഗ്രോത്ത് അക്വേയർ ചെയ്തിട്ടുണ്ട് വേൾഡ് എക്കണോമിക്കലി ലാർജ് നയന്ത് ലാർജസ്റ്റ് ആയിരുന്നു ഇന്ത്യൻ എക്കോണമി അത് ഫിഫ്ത്ത് ലാർജസ്റ്റ് എക്കോണമീസ് ഇൻ ദ വേൾഡ് ആയി മാറിയിട്ട് ഈയൊരു ഈ കഴിഞ്ഞ വർഷങ്ങളിലാണ് അതിനായിട്ട് മെയിൻ ആയിട്ട് സഹായിച്ചത് നമ്മുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ് പല നമ്മുടെ പല മേഖലകളിലും വിദേശരാജ്യങ്ങളിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നത് കൂടിയതു വഴിയാണ് ഈ ഒരു മാറ്റം ഇന്ത്യയിൽ കൊണ്ടുവരാൻ വന്ന കൊണ്ടുവരാൻ സാധിച്ചത് അതുപോലെ ഇന്ത്യയിലെ തദ്ദേശീയമായിട്ടുള്ള വ്യവസായങ്ങൾ കൂടുതലായിട്ട് പുതിയ പുതിയ വ്യവസായങ്ങളും പുതിയതു വന്നതുകൊണ്ടു കൂടി ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്ത് ഒരുപാട് വളർന്നിട്ടുണ്ട് പിന്നെ കൂടുതലും നമ്മുടെ സേവനങ്ങൾക്ക് ഗവൺമെൻറ് സേവനങ്ങൾ ഒക്കെ ഡിജിറ്റലൈസ് ചെയ്യുക വഴി ആളുകളുടെ സമയം ഒരുപാട് കൺസ്യൂം ടൈം ഒരുപാട് സേവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ള ഡിജിറ്റലൈസ് ചെയ്തതുകൊണ്ട് തന്നെ പല മേഖലയിലുള്ള മാൻ പവറിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിച്ചു അതൊക്കെ നമ്മുടെ ഇക്കണോം വലിയ രീതിയിൽ ഹെൽപ് ചെയ്തിട്ടുണ്ട് ഇൻറർനെറ്റ് ബാങ്കിങ്ങും ഡിജിറ്റൽ പെയ്മെൻറ് ഒക്കെ സാമ്പത്തികമായി ഒരുപാട് വളർച്ച ഉണ്ടാക്കാൻ ആയിട്ട് സഹായിച്ചിട്ടുണ്ട് അതുവരെ നമുക്ക് കൃത്യമായിട്ട് ടാക്സ് ഗവൺമെൻ്റിന് പേ ചെയ്യാനും അങ്ങനെ ഒരു ഇന്റർനെറ്റ് ബാങ്കിംഗ് ഒക്കെ വഴി കറക്റ്റ് ടാക്സ് പെയ്മെൻറ് നടക്കുന്നതു വഴി നമുക്ക് കൂടുതലായിട്ടും നമ്മുടെ എക്കോണമി വളരെയധികം ഗ്രോത്ത് അക്വേറിയം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ സാധിച്ചു അതിന് അഗ്രികൾച്ചർ സെക്ടറിലും അതുപോലെ വ്യവസായങ്ങൾ അതിപ്പം ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആയിക്കൊള്ളട്ടെ വാഹനങ്ങൾ ഉണ്ടാകുന്ന നിർമ്മാണ കമ്പനികൾ അതുപോലെ വിദേശരാജ്യങ്ങളിൽ നിന്നുള്ള പല കമ്പനികളും ഇന്ത്യയിലെ ഇന്ത്യയിലേക്കു പുതിയ പുതിയ സ വ്യവസായങ്ങളുമായിട്ടു വന്നതും അതൊക്കെ ഇന്ത്യയുടെ ഗ്രോത്തിനെ വളരെയധികം ഹെൽപ് ചെയ്തിട്ടുണ്ട്